എൻ്റെ വീട്ടിൽ എല്ലാ വീട്ടുപകരണങ്ങളുമില്ല ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങളുമില്ല പക്ഷേ ചിലതൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ടുന്ന മിക്സി ഗ്രൈൻഡർ ഗ്യാസ് സിലിണ്ടർ ഓവൻ ഇല്ല അത് നമ്മളെ അതിന് പകരമായിട്ട് മറ്റൊരു വസ്തു ഉണ്ടല്ലോ മറ്റേ ഇൻഡക്ഷൻ കുക്കർ അതുണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങൾ പിന്നെ ഉള്ളത് പിന്നെ പറയാനുള്ളത് എൻ്റെ പഴയ കാലം ആ ഒരു എന്താണ് അരകല്ലിൽ അരച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു കാലം അതും ഇന്നും വെച്ച് എന്തെങ്കിലും മാറ്റം എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അന്ന് എൻ്റെ വീടും ഇന്ന് എൻ്റെ വീടും വ്യത്യാസമാണ് അന്ന് ഓടിട്ട അല്ലെങ്കിൽ ഒരു സൈഡ് ഓലമേഞ്ഞ ഒരു സൈഡ് ഓടിട്ട അങ്ങനെയുള്ളൊരു ഓലമേഞ്ഞൊരു അടുക്കളയുള്ള ഓടിട്ട വീടായിരുന്നു ഇന്ന് അത്യാവശ്യം ഉറപ്പുള്ള കെട്ടുറപ്പുള്ളൊരു കോൺക്രീറ്റ് വീടാണുള്ളത് പിന്നെ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഉച്ചക്കത്തെ ഭക്ഷണവും രാവിലെ ഉള്ള ഭക്ഷണവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ നാല് മണിക്ക് എഴുന്നേൽക്കുവായിരുന്നു ഇന്ന് എന്റെ അമ്മ ഞാൻ എഴുന്നേൽക്കുന്ന ഞാൻ ജോലിക്ക് പോകാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെയാണ് ഏകദേശം എഴുന്നേൽക്കാറുള്ളത് ആ സമയത്ത് എഴുന്നേറ്റ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും പിന്നെ അന്നുണ്ടായ അന്ന് ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണവും ഇന്ന് ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണവും തമ്മിലെന്തെങ്കിലും രുചി വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നും എൻ്റെ അമ്മയുടെ ഭക്ഷണം എങ്ങനെ ആയിരുന്നോ അതെ രുചി തന്നെയാണ് ഇന്നും ഉള്ളത് അതിൽ മിക്സിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അരകല്ലോ യാതൊരു രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ ഈ ഇതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാഴ്ച എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ മിക്സി എന്ന് പറയുന്നതും അരകല്ലെന്ന് പറയുന്നതും സമയ നഷ്ടമാണ് മിക്സിയിൽ പെട്ടെന്ന് ആകും അരകല്ല് അങ്ങനെയല്ല മാത്രമല്ല ഈ കയ്യിട്ട് അരകല്ല് അരക്കുമ്പോൾ അതിലേക്ക് കയ്യിട്ട് ഇത് നേരെയാക്കണം എന്നാൽ മാത്രമേ അരയൂ അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ ഹൈജീനിക്ക് അല്ലാതാവുകയും ചെയ്യുന്നുണ്ടിത് അപ്പോൾ അതാണോ നല്ലത് ഇതാണോ നല്ലത് ചോദിച്ചാൽ ഞാൻ പറയും മിക്സി ആണ് നല്ലത് എൻ്റെ കാഴ്ചപ്പാടിൽ മിക്സി തന്നെയാണ് നല്ലത് ഇനി അരകല്ലരച്ച ഭക്ഷണത്തിന് രുചി വേറെയാണ് രുചി വേറെയാണ് അതിൽ തന്നെ അരച്ചാൽ മതിയെന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അവർ ഒന്നെങ്കിൽ കറണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നെങ്കിൽ കറണ്ട് ലാഭിക്കാൻ അല്ലെങ്കിൽ പഴമയോടുള്ള ഒരു വേണ്ടാത്ത രീതിയിലുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ അത് എന്ന് മാ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ലോകം നമ്മുടെ ചുറ്റുപാടും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ മാറികൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് എല്ലാം ചെയ്യാനുള്ള രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ മാത്രം അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അരാജകത്വമാണ് ശരിക്ക് ആ ഒരു അടുക്കളയിൽ പണിയെടുക്കുന്ന വ്യക്തി ആരാണോ എൻ്റെ കാഴ്ചപ്പാടതല്ല എന്നാലും ഞാൻ പറയുവാണ് അടുക്കളയിൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആ അടുക്കളയിൽ പണിയെടുക്കുന്ന വ്യക്തി ആരാണോ അവർക്ക് കൊടുക്കുന്നൊരു പ്രഷർ ആണ് അവർക്ക് അവരുടെ സമയം നഷ്ടം പെടുത്തുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ അവർക്ക് അധിക ജോലി ഭാരം കൊടുക്കുന്നു അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നു അവർക്ക് മറ്റൊരു ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ചെയ്യുന്നു ഇപ്പം ഞാനൊരു അടുക്കളയിൽ എൻ്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അരകല്ലിൽ അരച്ച് എനിക്കത് രുചിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അരകല്ലിൽ അരച്ച് ഭക്ഷണോണ്ടാക്കാം മിക്സിക്ക് പകരം പക്ഷേ എന്നോട് മറ്റൊരാൾ നീ ഇതിൽ അരകല്ലിൽ അരച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പകുതി എനിക്ക് തന്നാൽ മതി മറ്റേ മിക്സിയിൽ അരക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മിക്സി എടുത്തുകൊണ്ട് പോയാൽ അവരെ തല്ലണം എന്നേ ഞാൻ പറയുള്ളൂ വയലൻസ് അല്ല എന്നാലും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നു ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് അരകല്ലും മിക്സിയും എനിക്ക് വലിയ വ്യത്യസമായിട്ട് തോന്നിയിട്ടില്ല പഴയകാലത്ത് ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണവും ഇന്ന് കഴി ഇന്ന് കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ എനിക്ക് അത് ഉണ്ടാക്കാൻ അമ്മ എടുത്ത ആ ഒരു സാ സമയവും സാഹചര്യവും മാത്രമേ വ്യത്യസമായിട്ട് തോന്നിയിട്ടുള്ളൂ ഇന്ന് കുറച്ച് കൂടി എളുപ്പമാണ് എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഞാൻ അടുക്കളയിൽ കയറാറില്ല കാരണം അതിന് എൻ്റെ അമ്മ ഒരു പഴയ ആളാണ് അതുകൊണ്ട് തന്നെ അവരതിന് സമ്മതിക്കാറില്ല ഒരു പരിധിവരെ ഞാൻ ശ്രമിച്ചതാണ് പിന്നീട് പരാജയപ്പെടേണ്ടി വന്നു അവരുടെ വാശിക്ക് മുന്നിൽ എന്നുള്ളതാണ് പിന്നെ ഞാൻ പുറത്ത് പോയിട്ടൊക്കെ പോയി നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ അത് സ സമ്മതിക്കാറില്ല ഇപ്പോൾ നിലവിൽ സാഹചര്യവും ഇല്ല കാരണം രാവിലെ ആറ് മണിക്ക് എണീച്ച് വീട്ടിൽ നിന്ന് വിട്ട് പിന്നെ ഞാൻ വീട്ടിൽ കയറുന്നത് ഒരു മണിക്കാണ് ജോലിയും പഠനവും എല്ലാം ഒരുമിച്ച് കൊണ്ട് പോകുന്നത് കൊണ്ട് ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കേ